ഈ ഫിലിപ്സിൻ്റെ കെറ്റിലിൽ നിന്നും പ്രധാനമായിട്ട് എനിക്ക് രണ്ട് പോരായ്മകളാണ് തോന്നിയിട്ടുള്ളത് ആദ്യത്തേത് ഇത് ധാരാളം കറണ്ട് ബിൽ ചാർജ് ചെയ്യുകയും രണ്ടാമത്തേത് ഇതിലെ ചൂട് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ കെറ്റിൽ തന്നാലേ ഓഫാക്കുകയും ഇതിലെ ചൂട് കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വെള്ളം തിളയ്ക്കാനുള്ള സാധ്യത കുറവായി വരുന്നു ഭക്ഷണമാണ് പാകം ചെയ്യുന്നതെങ്കിൽ അത് നല്ലവണ്ണം വേകാനുള്ള സാധ്യതയും കൂടുതലാണ്